ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുറച്ചു കൂടി മലയാള ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തിട്ടുണ്ട് കാരണം വിവർത്തനം ചെയ്യുക എന്നു പറയുന്നത് നമ്മൾ മലയാളത്തെ നേരെ ഇംഗ്ലീഷാക്കുമ്പോൾ പല തരം വ്യത്യാസങ്ങൾ ആ ഒരു ഇപ്പം സെൻറ്റൻസാണെങ്കിൽ ആ സെൻറ്റൻസിൽ നമ്മളിരിക്കുന്നുണ്ട് കാരണം മലയാളത്തിൻ്റെ മലയാളത്തിൻ്റെ സ്ട്രക്ച്ചറല്ല ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ച്ചറിൽ വരുന്നത് ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ച്ചറെന്നു പറയുമ്പോൾ സ്ട്രക്ച്ചറിൻ്റെ ഓർഡർ പോലെയല്ല മലയാളത്തിൻ്റെ സ്ട്രക്ച്ചറിൻ്റെ ഓർഡർ വരുന്നത് നമ്മൾ ഈ ഇംഗ്ലീഷിലെ ഒബ്ജക്റ്റും സബ്ജക്റ്റും ഒക്കെ വരുന്നത് പോലെയല്ല മലയാളത്തിലെ ഒബ്ജക്റ്റും കർത്താവും കർമ്മി എല്ലാം വരുന്നത് ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും എന്നു പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഞാൻ പിന്നെ ഇംഗ്ലീഷ് സംസാ ഇംഗ്ലീഷ് സംസാരിക്കും പക്ഷേ അത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ പറയുമ്പോൾ ഐ സ്പീക്ക് ഇംഗ്ലീഷെന്നാണ് വരുന്നത് ഇംഗ്ലീഷിൽ നിന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് വരുന്നത് ഇംഗ്ലീഷ് സെൻറ്റൻസിൽ എന്താണ് അവസാനവും മലയാളത്തിൽ നടുക്കുമായിട്ടാണ് വരുന്നത്